എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ചന്ദ്രൻ സൂര്യൻ ഭൂമി കാരണം അതൊരു സ്പന്ദനമാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു ചന്ദ്രനിൽ ഇനി മനുഷ്യവാസം ഉണ്ടായേക്കാം കാരണം ഇനി ഭാവിയിൽ മനുഷ്യൻ താമസിക്കുന്നത് ചിലപ്പോൾ ചന്ദ്രനിലും മനുഷ്യൻ താമസിച്ചു എന്ന് വരാം കാരണം അവിടേക്ക് നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് പരീക്ഷണങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യനിൽ മാത്രം നിൽക്കാൻ പറ്റില്ല വൻ ചൂടാണ് സൂര്യനിൽ പക്ഷേ എന്താ പറയാ സൂര്യന് നമുക്ക് വല്ലാതെ എന്താ പറയാ ആകർഷിക്കുന്ന ഒന്നാണ് സൂര്യ ഭഗവാൻ അതായത് ഹിന്ദു ആചാരം അതായത് ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം സൂര്യൻ അവരുടെ ഭഗവാനാണ് അപ്പം അതേപോലെത്തന്നെ നമ്മൾ കഥകളിൽ കേട്ടിട്ടില്ലേ സൂര്യപുത്രനാണ് കർണ്ണൻ എന്ന് കുന്തി ദേവിക്ക് വരദാനം കിട്ടിയ ആ വരദാനം കിട്ടിയതിൽ ആദ്യം സൂര്യദേവനിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉണ്ടായ മകനാണ് സൂര്യപുത്രൻ കർണ്ണൻ എന്നാണ് വിശ്വാസം അതുകൊണ്ടുതന്നെ എനിക്ക് കർണനെക്കുറിച്ച് കർണ്ണനെക്കുറിച്ച് ഇങ്ങനെ എവിടെ കേൾക്കുമ്പോൾ പറയുമ്പോൾ സൂര്യഭഗവാനെയാണ് ആദ്യം ഓർമ്മ വരുക അപ്പോൾ സൂര്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഭൂമി ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് കോടാനുകോടി ആൾക്കാരും ഉള്ള ജനങ്ങൾ ഉണ്ട് മലകൾ ഉണ്ട് പുഴകളുണ്ട് കടലുകൾ ഉണ്ട് എല്ലാംകൊണ്ടും വിസ്തൃതമായ ഭൂമിയെക്കുറിച്ച് എന്തുകൊണ്ടും നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ അതേപോലെത്തന്നെ വാൽനക്ഷത്രം നക്ഷത്രം അനേകായിരം നക്ഷത്രങ്ങളും പിന്നെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ പറയപ്പെടുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്റ്റാറുകൾ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാറിന്റെ പേരൊന്നും അറിയില്ല പക്ഷേ എനിക്ക് കാണാൻ ഇഷ്ടമാണ് അതായത് ചന്ദ്രനും പിന്നെ നക്ഷത്രവും ഒക്കെയുള്ള രാത്രിയിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ മനോഹരമായിരിക്കും